ഡിജിലോക്കർ ഉൾപ്പടെ എൻ്റെ അക്കൗണ്ട് ഉള്ളൊരു വെബ്സൈറ്റിൽ സുരക്ഷാ ലംഘനത്തെക്കുറിച്ച് എനിക്ക് ഒരു ഇമെയിൽ അലേർട്ട് ലഭിച്ചാൽ ഞാൻ ആദ്യം തന്നെ ആ വെബ്സൈറ്റിൻ്റെ പാസ്സ് വേർഡ് മാറ്റും പാസ്സ്വേർഡ് പുതിയതും ശക്തമായതുമായ ഒന്ന് ആക്കാൻ ശ്രമിക്കണം അതുകഴിഞ്ഞ് വെബ്സൈറ്റിൽ രണ്ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ സൗകര്യം പ്രാപ്തമാക്കാൻ ശ്രദ്ധിക്കണം അതുകഴിഞ്ഞ് അക്കൗണ്ടിൽ പുതിയതായി നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം ഇതിനു ശേഷം ആ ആ വെബ്സൈറ്റിൻ്റെ സുരക്ഷാ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനിലെ സുരക്ഷാ സോഫ്റ്റ്വെയറും അപ്ഡേറ്റഡ് ആണോയെന്നു ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ അതപ്ടേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതു കഴിഞ്ഞ് എൻ്റെ ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളുമായി ലിങ്ക്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ ഏതെങ്കിലും പുതിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് നോക്കണം ഇതു കഴിഞ്ഞ് ഉപഭോക്ത പിന്തുണയ്ക്കുള്ള നമ്പറിൽ വിളിച്ച് അവരെ ഇ ഇമെയിലിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ബോദ്ധ്യപ്പെടുത്തണം ഇതിലൂടെ നമുക്ക് ഭാവിയിൽ ഇങ്ങനത്തെയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ സുരക്ഷയും നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയും ഇതിലൂടെ ഉറപ്പ് വരുത്താൻ സാധിക്കും